ഹലോ ആ അതുതന്നെ അതുതന്നെ അതുതന്നെ ഓക്കെ എങ്ങനെയാണ് ഫ്രെഷ് പീസെടുക്കാനാണോ അല്ലെങ്കില് സർവീസ് കാര്യങ്ങള് വല്ലതുമായിട്ടാണോ ഓക്കെ ഫ്രഷ് പീസ് ഓക്കെ ബ്രോ സ്ഥലമെവിടെയാണ് ബ്രോയുടെ കട്ടപ്പന ആയിക്കോട്ടെ ഓക്കെ നമ്മുടെ ഓഫീസ് നമുക്ക് ബ്രാഞ്ച് കട്ടപ്പനയിലുണ്ട് ഓക്കെ അപ്പോള് എളുപ്പമായി അല്ല അപ്പോള് എവിടെ നിന്ന് എവിടെ നിന്ന് കോണ്ടാക്ട് നമ്പര് എവിടെ നിന്ന് കിട്ടി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ഓ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ഓക്കെ അപ്പം ബ്രോ ഫ്രെഷ് പീസാണോ നോക്കുന്നത് എങ്ങനെയാണ് നോക്കുന്നത് ഏതായിരുന്നു ഏത് ഏതായിരുന്നു പോക്കോ ഏതായിരുന്നു എക്സ് പ്രോ നമുക്ക് നമ്മുടെ കയ്യില് രണ്ട് വേരിയൻ്റ് ഇരിപ്പുണ്ട് വൺ ടൊൻ്റി എയിറ്റുമുണ്ട് ടു ഫിഫ്റ്റി സിക്സുമുണ്ട് ടു ഫിഫ്റ്റി വരുമ്പോള് നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻറ്റേണൽ വരുന്നുണ്ട് എയിറ്റ് ജി ബി റാമാണ് വരുന്നത് പിന്നെ നമുക്കതിൻ്റെ ക്യാമറ നല്ലൊരു ക്യാമറയാണ് പിന്നെ നമുക്ക് അതിനകത്ത് എക്സ്ട്രയായിട്ട് വരുന്നത് ചാർജര് വരും സ്ക്രീൻ ഗാഡ് നമ്മള് ഫ്രീയായിട്ട് ചെയ്യും പിന്നെ ഒരു ബാക്ക് കവറുമുണ്ട് ഓക്കെ അപ്പോള് ഇപ്പോള് നമുക്കെടുക്കുകയാണെങ്കില് നമുക്കൊരു ഓഫറുണ്ട് നമുക്കിപ്പം സേ ഇപ്പം നമുക്ക് കടയിൽ സെയിൽസായതുകൊണ്ട് നമുക്ക് കുറച്ച് ഓഫറുണ്ട് ഈ ഫോണിന് ഇപ്പോള് നമുക്ക് ഈ ടു ഫിഫ്റ്റി സിക്സിൻ്റെ റേറ്റ് പറയുന്നത് തേട്ടി എയിറ്റ് തൌസണ്ടാണ് ആ ഉണ്ട് ഉണ്ട് ഇ എം ഐ ഉണ്ട് ഇ എം ഐ അടയ്ക്കാം ഇ എം ഐ സീറോ പേർസെൻറ്റേജ് അപ്പോള് ചേട്ടാ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഒന്ന് നോക്കേണ്ടി വരും ബാലൻസിന്റെ കാര്യം നോക്കേണ്ടി വരും

ആ അപ്പോള് അതിൻ്റെ ഇ എം ഐ നമുക്ക് എടുക്കുകയാണെങ്കില് എത്രയാണോ ഒരു സെവൻ ഫിഫ്റ്റീന്റെ മുകളിലുണ്ടെങ്കില് നമുക്ക് സീറോ ഡൌൺ പേമെൻ്റിന് നമുക്ക് എടുക്കാം ആ എന്നാല് നമുക്ക് ഉറപ്പായിട്ടും ബ്രോ ബ്രോ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് സീറോ ഡൌൺ പേയ്മെൻ്റിനെടുക്കാം സീറോ അപ്പോള് അതിൻ്റെ ചോദിച്ചതുകൊണ്ട് സീറോ ഡൌൺ പേയ്മെൻ്റിന് എടുക്കുകയാണെങ്കില് നമുക്ക് മന്തിലി മന്തിലി ഒരു തൌസണ്ട് സെവൺ ഫിഫ്റ്റി വെച്ച് മന്തിലി മന്തിലി അടച്ചാല് മതി അത് ബ്രോയുടെ ഇഷ്ടം പോലെ ഇപ്പം ബ്രോയിക്ക് ഇപ്പം രണ്ടായിരത്തിയഞ്ഞൂറ് അടയ്ക്കുകയാണെങ്കിൽ ബ്രോയിക്ക് വേണമെങ്കില് സിക്സ് മന്ത്സിൻ്റെ വെയ്ക്കാം ട്വല്വ് മന്ത് വെയ്ക്കാം ട്വൻടി ഫോർ മന്ത് വെയ്ക്കാം ഓക്കെ അപ്പോള് നമുക്ക് ഓക്കെ അപ്പോള് ട്വൊൻടി ഫോർ മന്ത് വെയ്ക്കുകയാണെങ്കില് നമുക്കൊരു ഏകദേശമൊരു തൗസണ്ട് ഫോർ ഫിഫ്റ്റി തൗസണ്ട് ഫൈവ് ഹൻഡ്രഡ് റേറ്റ് മന്ത്ലി മന്ത്ലി എല്ലാം ബ്രോ അപ്പം മാസത്തിലെ ഏറ്റവും അവസാനത്തെ ഇപ്പോള് മുപ്പതാം തീയതിയാണെങ്കില് മുപ്പതാം തീയതി ഫണ്ടിടുക ഒന്നാം തീയതി തന്നെ ബ്രോയുടെ അക്കൌണ്ടില് നിന്ന് ക്രെഡിറ്റാകും സോറി ഡെബിറ്റാകും തന്നെ ഡെബിറ്റാകും അപ്പോള് മാസം അവസാനം ബ്രോയുടെ അക്കൌണ്ടില് ഒരു തൗസണ്ട് ഫൈവ് ഹൻഡ്രഡ് ഇടുകയാണെങ്കില് നമ്മള് ബാങ്കില് നിന്ന് നമ്മള് അത് വലിക്കുന്നതാണ് അല്ല നമുക്ക് ഫോൺ ബ്രോ ഒരു പെയ്മെൻ്റ് പോലും തരേണ്ട ഡീറ്റെയിൽസ് ബ്രോ ആധാർ കാർഡ് വേണം ഒരു ഫോട്ടോ വേണം ആ പിന്നെ ആ അത്രയും മതി പിന്നെ കളര് നമുക്ക് നമുക്ക് ഇപ്പോള് ഫോർ കളേഴ്സ് അവൈലബിളാണ് യെല്ലോ ഉണ്ട് ബ്ലാക്കുണ്ട് വൈറ്റുണ്ട് ഗ്രീനുണ്ട് ആ അപ്പോള് ബ്രോ അപ്പോള് എന്നത്തേക്ക് വരാൻ വേണ്ടിയാണ് ഇന്ന് വരാൻ വേണ്ടിയാണോ അല്ലെങ്കില് ഓക്കെ അപ്പം വരുമ്പോള് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെയായിട്ട് വന്നാല് മതി ബ്രോ നമുക്ക് തേട്ടി എയിറ്റ് തൗസണ്ടാണ് വരുന്നത് അത് നമുക്ക് ഈ ഇ എം ഐ കൂടെയായതുകൊണ്ട് നമുക്കിപ്പോള് ഫ്രഷ് ബ്രോ തേട്ടി എയിറ്റ് തൗസണ്ട് തന്നെ ഫോൺ എടുക്കുകയാണെങ്കില് കുഴപ്പമില്ല നമുക്കൊരു തേർട്ടി സിക്സ് തൗസണ്ടിനൊക്കെ തരാം പക്ഷേ ഇ എം ഐ ആയി നോക്കുന്നതുകൊണ്ടൊരു തേട്ടി ത്രീ അത് ഫിക്സഡ് പ്രൈസാണ് ആ നമുക്ക് ആ ഒരു റേറ്റിലെ തരാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്പോള് ഇ എം ഐ ആയതുകൊണ്ട് ഇപ്പം ഫുള് എമൗണ്ട് കൊടുത്തെടുക്കുകയാണെങ്കില് നമുക്ക് ഇത്തിരി കൂടെ കുറച്ചു തരാന് പറ്റുമായിരുന്നു ആ ഓക്കെ അപ്പോള് ഇന്നീ നമ്പറില് ഈ അപ്പോള് അതുകൊണ്ട് ഇ എം ഐ തന്നെ നോക്കിയാല് മതി അപ്പോള് ഇ എം ഐയുടെ മന്ത്ലി ഒരു തൗസണ്ട് ഫൈവ് ഹൻഡ്രഡ് വെച്ച് അടച്ചാല് മതി ഓക്കെ എന്നെ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താല് മതി ആ ഓക്കെ ഞാനീ ഞാൻ ആ ബ്ലാക്കിൻ്റെ വേരിയൻ്റിൻ്റെ ഫോട്ടോ ഈ വാട്സപ്പിലേക്ക് അയച്ചേക്കാം ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി ഓക്കെ ആ